ഇപ്പോൾ നമ്മൾ റേഡിയോ പരിപാടി ഞാൻ കൂടുതലായിട്ട് കാ കേൾക്കാറില്ല ഇപ്പോൾ നമ്മൾ ടി വിയിലാണ് പരിപാടികൾ ഒക്കെ കാണുന്നത് ഇപ്പം ടി വിയിലും തന്നെ നമ്മൾ സീരിയൽ ഒന്നും അങ്ങനെ കൂടുതലായിട്ട് കാണുന്നില്ല പക്ഷേ അതല്ലാതെ ന്യൂസുകൾ പിന്നെ ഐഡിയ സ്റ്റാർ സിംഗർ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ അത് കണ്ടിരുന്നു പിന്നെ കോമഡി പരിപാടികൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും കാണുന്നത് പിന്നെ മഴവിൽ മനോരമയിൽ എൻ്റെ അമ്മ സൂപ്പർ ആണ് എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു അത് ഞാൻ സ്ഥിരം കാണുന്നൊരു വൃക്തി ആയിരുന്നു കാരണം നമ്മളെ പോലത്തെ അമ്മമാർ ഉള്ള ഒരു കുട്ടികളും ഉള്ള പരിപാടിയാണ് അതിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അത് അതിൻ്റെ ഓരോത്തരും ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കാണാം പിറ്റേ ദിവസം ആ സമയം ആവാൻ വേണ്ടിട്ടു നമ്മൾ ഇങ്ങനെ നോക്കി ഇരിക്കും ഇന്നെന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കാണുക കണ്ട് ആസ്വാദിക്കലുണ്ട് പിന്നീട് നമ്മുടെ ഒരു ചിരി ഇരു ചിരി ബംബർ ചിരി പറഞ്ഞിട്ട് ഒരു കോമഡി പരിപാടി ഉണ്ട് അത് കാണലുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം നൽകും കാരണം കുറച്ച് ടൈം കിട്ടുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ചിരിക്കാനും കൂടുതലും എന്റർടൈമെൻറ് എന്ന നിലയ്ക്ക് നമ്മൾ അത് കൂടുതൽ കാണാനൊക്കെ ശ്രമിക്കലുണ്ട് അപ്പോൾ നല്ലൊരു പരിപാടി ആയിട്ട് തന്നെ നമുക്ക് തോന്നൾ പിന്നെ ഇപ്പം ഏഷ്യാനെറ്റിൾ ഇപ്പോൾ നമ്മൾ പിന്നെ ബിഗ് ബോസ് എന്നൊരു പരിപാടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യ ആദ്യമൊക്കെ വലിയൊരു ഇതൊന്നും തോന്നിയില്ലെങ്കിലും ഇപ്പോൾ നല്ലൊരു പരിപാടി ആയിട്ട് ഇത് മാറുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിജയി ആരാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റിംഗിലാണ് എന്താണ് ആ ഗെയിം എന്താണ് ഇപ്പോൾ ഒരുപാട് സീസൺ ആയി തുടങ്ങിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ടി വിയിലൂടെ കൂടുതലും കാണുന്നത് പിന്നെ നല്ല പാട്ടുകൾ ഉണ്ടെങ്കിൽ അത് കേൾക്കാറുണ്ട് സിനിമയും വല്ലപ്പോഴും നല്ല സിനിമ ആണെങ്കിൽ വല്ലപ്പോഴും സിനിമ കാണാറുണ്ട് ടി വിൻ്റെ ഉപയോഗം ആണ് നമ്മൾ കൂടുതൽ ആയിട്ടും ടി വിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്